ഞങ്ങളുടെ നിയമസഭാ മണ്ഡലം പാലക്കാടാണ് പാലക്കാട് ഞങ്ങളുടെ എം എൽ എ ഷാഫി പറമ്പിലാണ് അദ്ദേഹം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച എം എൽ എയാണ് അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വമാണ് പാലക്കാടിനുവേണ്ടി വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു എം എൽ എയാണ് ഷാഫി പറമ്പിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് പാലക്കാടിനു വേണ്ടി മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ വളരെയധികം പ്രവർത്തിച്ച ഒരു എം എൽ എ ഷാഫി പറമ്പിലാണ് കാരണം ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് അത്യാവശ്യമായ കാര്യം തന്നെയാണ് അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വികസനം എന്തെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് ആണ് പാലക്കാടിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് കുറേക്കാലമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അത് നവീകരിക്കാൻ ഫണ്ട് നൽകിയ എം എൽ എ അതിനുവേണ്ടി പ്രവർത്തിച്ച വളരെയധികം പ്രവർത്തിച്ചത് ഷാഫി പറമ്പിൽ ആയിരുന്നു അതുപോലെതന്നെ കൂടുതൽ കുറേയധികം വികസന പ്രവർത്തനങ്ങൾ പാലക്കാടിനു വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിലെ റോഡുകൾ പാലക്കാടിലെ റോഡുകൾ മികച്ചതാക്കാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എല്ലാ ഗ്രാമ പ്രദേശങ്ങളിലും റോഡുകൾ മികച്ചതാക്കി അതുപോലെതന്നെ സിന്തറ്റിക് ട്രാക്ക് പാലക്കാട് സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവരാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അത് മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ സഹായിക്കുന്നു അതുപോലെതന്നെ ബസ് സ്റ്റോപ്പുകൾ എല്ലാ ബസ് സ്റ്റോപ്പുകളും അത്യാധുനിക രീതിയിലേക്ക് മാറ്റാൻ അദ്ദേഹം ഫണ്ട് ഉപയോഗിച്ചു പിന്നെ ആധുനിക രീതിയിലുള്ള തെരുവു വിളക്കുകൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ആധുനിക രീതിയിലുള്ള തെരുവു വിളക്കുകൾ സ്ഥാപിക്കാൻ അദ്ദേഹം ഫണ്ട് നൽകിയിട്ടുണ്ട് അതുപോലെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പ്രത്യേക ഫണ്ട് അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട് അതും വളരെ മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ്